ഇവിടാകെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് ഗെയിമുകളിൽ ഒന്ന് വടംവലി പിന്നെയുള്ളത് ഫുട്ബോള് മലപ്പുറം ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതലും വടംവലിയാണ് ഇപ്പം വടംവലിയും ഫുട്ബോളും ആണിപ്പോൾ ആകെയുള്ളത് പിന്നെ പണ്ടുകാലം പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ പറയാമായിരുന്നു പണ്ട് എന്തുവാണ് ഏറുപന്ത് പിന്നെ കുറ്റിയേറ് അക്ക് പിന്നെ വട്ടുകളി ഇതൊക്കെയുണ്ട് ഇപ്പം ആകെ പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ട് ഗെയിം എന്റെ ഓര്മ്മയിലിതേ ഉള്ളൂ ഒന്ന് വടംവലി പിന്നെയുള്ളത് എന്തായിരുന്നു ഫുട്ബോള് ആ രീതിയിലുള്ള അതൊക്കെ ഉള്ളൂ

അതും നല്ലപോലെയുണ്ട് കാരണം സ്റ്റേറ്റിലൊക്കെ പോയി ഞാനും ഇത് കളിച്ചിരുന്നു സ്റ്റേറ്റിൽ കളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനും പണ്ടുകാലം സെൻ്റ്തോമസില് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ പിന്നെ അതു കഴിഞ്ഞ് ഞാൻ ആ കബഡിയുണ്ട് കബഡിയും ആ കബഡിക്കും ഞാന് പോയിട്ടുണ്ട് സ്റ്റേറ്റിൽ പോയിട്ടില്ല പുറത്തായായിരുന്നു ഇവിടുന്നുതന്നെ പുറത്തായാരുന്നു അതൊക്കെ നമ്മൾ കബഡി ഞാൻ ഇപ്പം കബഡി വടംവലി ഖോ ഫുട്ബോള് ഇതൊക്കെ നല്ലപോലെ പ്രോത്സാഹിക്കുന്ന ഒരു സര്ക്കാരാണ് നല്ലതുപോലെ ഒരു കാരണവശാലും അവർ അത് മാറ്റത്തില്ല പക്ഷെ ഞാനിപ്പോൾ എന്തോരം കളികൾ പിന്നേയും കിടക്കുന്നു ആ കളികളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൂടെയൊന്ന് വിടുകയാണെങ്കില് കൊള്ളാം അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കണം സര്ക്കാരൊക്കെ അതൊക്കെ നോക്കണം എത്രയോ നല്ല ആള്ക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു ഇവരെയൊന്നൊരു മുന്നോട്ട് ഇപ്പം എന്താ അമ്മയുടെ ടീമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അമ്മയുടെ ടീമ് സിനിമാക്കാരുടെ അമ്മയുടെ അമ്മയുടെ ടീമില്ലേ അവർ അവരെയൊന്നും ഇത് പ്രോത്സാപ്പിക്കുന്നേയില്ല അവരായിട്ട് നടത്തുന്ന പരിപാടിയാണ് അവരേയും പ്രോത്സാഹിപ്പിച്ച് കയറ്റണം മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തണം